ആ അതെ അതെ ഓ ഉണ്ടല്ലോ ആപ്പിൾ ഇവിടെയുള്ളത് കാശ്മീരി ആപ്പിളാണ് അപ്പം അതിന് കിലോന് നൂറ്റി അമ്പത് റുപ്പിയ ഉണ്ട് പഴങ്ങൾക്ക് ഇവിടെ വരിക്ക ചക്ക മാത്രമേ ഉ ഉള്ളു വരിക്ക ചക്കയല്ലേ വേണ്ടേ ആ വരിക്ക ചക്കയ്ക്കും കിലോന് അറുപത് റുപ്പിയ ഉണ്ട് ആ തേൻ വരിക്കയുണ്ട് നല്ല സാധനം ഇന്ന് രാവിലെ വന്ന സാധനമാണിത് ആ നല്ല ചക്കയാണ് ഇത് കർണാടകതിൽനിന്ന് വന്നതാണ് നമുക്കല്ലേ കേരളത്തിലല്ലേ ക ചക്ക സീസൺ അല്ലാത്തെ കർണാടകത്തിൽന്നു വന്നതാണ് നിങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ ടൗണിന്നാ ആ അങ്ങനെയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ വരാം കുഴപ്പമില്ല ആ ഇവിടെന്ന് എത്തിച്ചെരാം ഈ രണ്ട് സാധനം മാത്രമേ വേണ്ടൂ ആ ഹാ ആ നിങ്ങളൊന്നു കൊണ്ടും പേടിക്കണ്ടാ ആ നിങ്ങളൊന്നു കൊണ്ടും പേടിക്കണ്ടാ ഇവിടുത്തെ സാധനമെല്ലാം നല്ല സാധനമാണ് നിങ്ങളെപ്പോഴെങ്കിലും ടൗണിലേയ്ക്ക് വല്ലതും വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എപ്പോഴും ഇവിടെ തിരക്ക് തന്നെയാണ് നല്ല വരിക്ക ചക്കയാ തേൻ വരിക്ക ചക്ക ഇ നമ്മളെല്ലാ ദിവസവും രാവിലെ ഇറക്കുന്നതാണ് ചക്ക അത് അന്ന് തന്നെ തീരും അതുകൊണ്ട് ഒന്നു കൊണ്ടും പേടിക്കണ്ട ആ നിങ്ങൾ ദേ ഇതും എടുത്തിട്ട് നോക്കിക്കോ നിങ്ങൾക്ക് നല്ല വില കിട്ടിയിട്ടും നിങ്ങളിങ്ങോട്ട് തിരിച്ച് തന്നെ കൊണ്ട് വന്നോളു നമ്മളിങ്ങോട്ടെടുത്തോളും

ആ ഓക്കെ നിങ്ങളെന്നാൽ വിളിക്ക്